ആ പറഞ്ഞോളൂ അതേലോ വെരി ഗുഡ് മോർണിംഗ്

ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ

അതിന് തീർച്ചയായിട്ടും ഓ തീർച്ചയായിട്ടും തീർച്ചയായി തീർച്ചയായിട്ടും അതെന്താന്ന് അറിയാമോ നമ്മൾ കോളേജ് നമ്മൾ കോളേജിനെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ മൂന്നാം വർഷം അതായത് ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കരിയർ ഗൈഡൻസ് കോഴ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് മൂന്ന് മൂന്ന് മാസത്തിൽ ഒരിക്കൽ അവരുടെ കോഴ്സിനെ സംബന്ധിച്ച് ആ കോഴ്സിൻ്റെ ആ കോഴ്സ് ചെയ്യുന്നതു കൊണ്ട് അവർക്ക് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകാവുന്ന എന്ത് നേട്ടമാണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും അതിന് അനുസരിച്ച് അവർക്ക് വിവിധ മേഖലകളിൽ അവരെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന വിവിധ മേഖലകൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കുകയും അതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയും പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അരുൺനെ സംബന്ധിച്ചെടുത്തോളം അവനൊരു ടാലൻ്റഡ് ഫെലോയാണ് അപ്പോൾ അവന് വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ അവനെ ഈ കഴിഞ്ഞ ഇത് കോഴ്സിൽ അവനെയൊക്കെ നമ്മൾ നോട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ആ നമ്മൾ നമ്മൾ ഓരോ കുട്ടികളെയും ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അതിനകത്ത് കുറെ കൂടുതൽ ടാലൻ്റഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വളരെ അപ്കമിംഗാണ് അവർ വളരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷയുള്ളവരെ നമ്മൾ കുറെ കൂടെ കൂടുതലായിട്ട് അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കരിയർ ഗൈഡൻസെന്ന് പറയുന്നത് നമ്മുടെ ഈ അടുത്ത ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ വിവിധ കമ്പനികളിൽ നിന്നുള്ള ടീമുകൾ നമ്മുടെ ഇൻടേക്കിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് ക്യാമ്പസ് ഇൻറർവ്യൂകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസീ പിള്ളേരെ ഇപ്പോഴേ നമ്മൾ ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇവിടുന്നൊരു ഡിഗ്രി ആയിട്ട് അല്ലേൽ കൊമേഴ്സിൽ ഒരു ഡിഗ്രി ആയിട്ട് അവൻ പുറത്ത് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് കമ്പനിയിൽ അവന് ഒരു പണി കിട്ടുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കാനാണ് കോളേജ് ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇപ്പം ഈ ഈ വന്നിരിക്കുന്ന ഈ ബാച്ചിലുള്ള കുട്ടികളൊക്കെ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അരുണൊക്കെ അതിനകത്ത് വളരെ എന്താ പറയുന്നത് ടാലൻ്റഡ് ആയിട്ട് മുമ്പിൽ നിൽക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഭാഗ്യമായിട്ട് കണക്കുകൂട്ടിക്കോളൂ ഇന്നത്തെ കാലത്ത് ഈ രീതിയിൽ മക്കളെ നമുക്ക് നമ്മൾ പറയുന്ന രീതിയിലൊക്കെ പഠിക്കയും കൂടെ നിൽക്കയൊക്കെ ചെയ്യുന്ന പ്രത്യേകിച്ച് ആൺകുട്ടികൾ വളരെ ഒരു അസുലഭമായ ഭാഗ്യമായിട്ട് കണക്കു കൂട്ടിയാൽ മതി ആ പറഞ്ഞോളൂ അല്ല അതല്ല എന്നാന്ന് അറിയാവോ നമ്മൾ അതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കോളേജിൻ്റെ ഒരു നിലനിൽപ്പ് അല്ലെ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻന്ന് പറയുന്നത് ഈ കോളേജിൽ വന്നു പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തു കൊണ്ടുപോയി എന്നറിയുന്നതിലാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത് നമ്മളെല്ലാ പിള്ളേരെ അക്കാഡമിക് ആയിട്ട് എന്തെങ്കിലും പഠിപ്പിച്ചു വിട്ടു എന്നുള്ളതല്ല മറിച്ച് അവരുടെ ജീവിതം പ്രാക്ടിക്കൽ ലൈഫിൽ അവർ എന്ത് അച്ചീവ് ചെയ്തുന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുതൽ കൂട്ടാകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് അത് വളരെ നല്ല രീതിയിൽ ആ പറഞ്ഞോളൂ ഉവ്വ ആ തീർച്ചയായിട്ടും അല്ല അത് അത് ചെയ്തിട്ടുണ്ട് അവന് അവന് നമ്മൾ ആ രീതിയിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട് അതിനകത്തൊന്നും വേറെ വിഷയമോ ആകുലപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല അവൻ അത് തീർച്ചയായിട്ടും മെയിൻ്റെയ്ൻ ചെയ്തോളും കുഴപ്പമില്ലാതെ നമുക്ക് ഒക്കെ ചെയ്യാം കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ഓക്കേ താങ്ക് യൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ